കാർഷികോൽപ്പന്നങ്ങള് ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല തോതിലുള്ളൊരു കാര്യമാണ് കാർഷികോൽപ്പന്നങ്ങളെന്ന് പറഞ്ഞാല് അതായത് ഞങ്ങളുടെ നാടുകളിലൊക്കെ കർഷകന്മാര് നല്ലവണ്ണമുണ്ട് പൊതുവെ പാലക്കാട് ജില്ലയെന്ന് പറയുകയാണെങ്കില് കർഷകന്മാരും നല്ലവണ്ണമുണ്ട് പിന്നെ അതോടുകൂടി എന്തുണ്ട് നല്ല വിളകളൊക്കെ അതായത് പൊതുവെ നല്ല അരി അരിയുടെ നാടാണെന്ന് അറിയപ്പെടുന്നൊരു നാടാണ് പാലക്കാടാണ് അപ്പോള് പൊതുവേ ഞങ്ങളുടെ നാടുകളിലൊക്കെ ഈ കർഷകർക്കെന്താണ് നല്ല പണ്ടത്തെ മാതിരിയല്ല പണ്ടൊക്കെ പണ്ടെന്നൊക്കെ പറയുകയാണെങ്കില് അതിനുള്ള ഓരോ എന്താണ് നല്ല നല്ല സാധനങ്ങളൊക്കെ അതായത് നല്ല രാസവളങ്ങളൊന്നുമില്ലാത്ത നല്ല അതായത് നല്ല എന്താണ് രാസവളങ്ങളൊന്നുമില്ലാത്ത നല്ല നല്ല സാധനങ്ങൾ വളങ്ങളൊക്കെയുണ്ടായിരുന്നു പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് കുറേ മരുന്നൊക്കെ അടിച്ചിട്ടാണ് അപ്പോള് അവർക്ക് അതിനനുസരിച്ചുള്ള കുറേ ഉൽപ്പന്നങ്ങള് എന്താണ് അവർക്ക് നല്ല അത്യാവശ്യമുണ്ടായിരുന്നു അതായത് ഇപ്പോള് ഉൽപ്പന്നങ്ങളെന്ന് പറഞ്ഞാല് പണ്ടൊക്കെ എന്താണ് ഉഴുതുമറിക്കാന് അവര് തന്നെ സ്വന്തമായിട്ട് ആക്കലായിരുന്നു പക്ഷെ ഇപ്പോള് പറയുകയാണെങ്കില് അങ്ങനെയല്ല ഇപ്പോള് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു ട്രാക്ടറാണ് ആ ട്രാക്ടര് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഉഴുതുമറിക്കലാണ് ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പോള് ഇന്ന് ഉഴുതുമറിക്കാനൊക്കെ എങ്ങനെയാണ് ഒരു ട്രാക്ടറൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ പണ്ടത്തെക്കാലത്ത് എന്തല്ല അങ്ങനെയല്ല പക്ഷെ ഇന്നത്തെക്കാലത്തും അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ തീരെയില്ലെന്നല്ല ഞാൻ പറഞ്ഞുവരുന്നത് പക്ഷെ ഇന്നെന്തുണ്ട് പണ്ടത്തെയത്ര എന്തില്ല ഒരിക്കലും ഈ കർഷകരുടെ പണ്ടത്തെ രൂപത്തിലുള്ള ഒരു കാർഷിക രൂപമല്ല ഇന്നുള്ളത് അതായത് പലരും പല രൂപത്തിലാണ് കർഷകന്മാരുള്ളത് അതായത് പല രൂപത്തിലാണ് പലരും കൃഷി ചെയ്യുന്നത് പലർക്കുമെന്ന് വെച്ചാല് ഇന്നത്തെ ചിലയാളുകൾക്ക് കൃഷി ചെയ്യാന് തന്നെ ചിലര്ക്ക് താല്പര്യമൊന്നുമില്ല പക്ഷെ കൃഷി ചെയ്യാനുള്ളവർക്ക് എന്തില്ല ആ അവര്ക്ക് അതായത് നമ്മള് ഈ അടുത്ത പലരും എന്ത് കുറേ കാർഷിക സമരങ്ങളൊക്കെ നമ്മള് കുറേ കേട്ടതാണ് അതെന്തുകൊണ്ടാണ് അവര്ക്ക് കൃഷി ചെയ്യാനുള്ള സാധനങ്ങളില്ല അങ്ങനെ കൃഷി ചെയ്യാനുള്ള സാധനങ്ങള് മേടിക്കുകയാണ് പിന്നെ അവര്ക്ക് ചിലപ്പോള് എന്താണ് ചെറിയ തുച്ഛം എന്ത് ചിലപ്പോള് ഈ ശമ്പളം കിട്ടുകയുള്ളൂ അങ്ങനെയത് കിട്ടാതെയാകുമ്പോള് അങ്ങനെ കടത്തിലായി പിന്നെ അവര് മരിക്കുകയാണ് ആത്മഹത്യ ചെയ്യുകയാണ് അത് നമ്മള് കേൾക്കുന്നതാണ് അപ്പോള് ഇന്നത്തെക്കാലത്ത് അതില്ല അത് ലഭ്യമല്ലെന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ് അത് നമുക്കെല്ലാവർക്കുമൊരു എന്താണ് പകൽവെളിച്ചം പോലെ സത്യമായ കാര്യമാണ് പിന്നെയെന്താണ് ഇന്ന് എന്താണ് പലയാളുകൾക്കും എന്തുണ്ട് അത് ഗതാഗതമാർഗ്ഗങ്ങളൊക്കെ ഇന്നും എന്താണ് കിട്ടുന്നില്ല അതായത് നമ്മള് നേരത്തെ പറഞ്ഞ ട്രാക്ടർ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവര്ക്ക് കിട്ടിയാല് അവര്ക്ക് വളരെ സുഖമായിട്ട് എന്താണ് പറയുക കൃഷി ചെയ്യാം പക്ഷെ ഇന്ന് എന്താകുന്നില്ല അവര്ക്ക് ഫുള്ളായിട്ട് കിട്ടുന്നില്ല പക്ഷെ എന്താണ് ഇനി കിട്ടുന്നവരുണ്ട് അതായത് കിട്ടാത്തവരാണ് കൂടുതല് ആളുകളും ഇനി കിട്ടുന്നവര് തന്നെ എന്തില്ല നല്ല രൂപത്തില് അതായതൊരു പഴയ രൂപത്തില് അതായത് പഴയ എന്താണ് പഴയ രൂപത്തിലുള്ള എന്തൊക്കെയോയാണുള്ളത് അതുകൊണ്ടു തന്നെ എന്തുണ്ടാകുന്നില്ല അവര്ക്ക് നല്ല രൂപത്തില് വിള നടത്താൻ സാധിക്കുന്നില്ല അത് ഇന്നും അവര്ക്ക് അതായത് ഇന്ന് കാർഷിക സമരമൊക്കെ നടത്തുന്നത് എന്തുകൊണ്ടാണ് അവര്ക്കങ്ങനെ ധാരാളം വെല്ലുവിളികളും നേരിടുന്നുണ്ട് അപ്പോള് ഇതിന് ധാരാളം പരിഹാരങ്ങള് വേണം അപ്പോള് അതിനുള്ള പരിഹാരമെന്താണ് ഗവൺമെൻറ്റ് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കർഷകന്മാരെ അതായത് ഈ കൃഷിയില്ലാത്ത അതായത് അരിയില്ലാതെ നമുക്കെങ്ങനെയെങ്കിലും ജീവിക്കാം ഇപ്പം അരി തന്നെ വേണമെന്നില്ല ഇപ്പം നമ്മളൊരു സാധനം കഴിക്കുമ്പോള് അപ്പോള് അതുണ്ടെങ്കിലല്ലെ ഇപ്പോള് നമുക്കെന്തെങ്കിലുമൊക്കെ തിന്നണമെന്നുണ്ടെങ്കില് അങ്ങനത്തെയൊക്കെ വേണ്ടേ അപ്പോള് അങ്ങനെയില്ലാതെ എങ്ങനെയാണ് നമ്മള് കഴിക്കുക അപ്പോള് കർഷകന്മാർക്കുള്ള പരിഹാരം കണ്ടെത്തേണ്ടതാരാണ് അത് ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് എന്താക്കണം അവര്ക്ക് കൃഷി ചെയ്യാനുള്ള സാധനങ്ങള് ചെയ്തുകൊടുക്കണം അവര്ക്ക് വിളയ്ക്കുള്ള സാധനങ്ങള് ചെയ്തുകൊടുക്കണം അവര്ക്ക് വളങ്ങള് എത്തിച്ചുകൊടുക്കണം അങ്ങനെ എല്ലാ സാധനങ്ങളും എത്തിച്ചുകൊടുക്കേണ്ടത് അവരാണ് എന്നാലെ എന്താകാന് പറ്റുകയുള്ളൂ ഇനി ഒന്നുകൂടി എന്താണ് ഈ ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റിയുള്ളതാകാനും എന്താണ് ഇത് നന്നായി സഹായിക്കും അപ്പോള് നല്ല സാധനങ്ങള് ഇറക്കിക്കൊടുത്താല് എന്താണ് നല്ല ഗതാഗത സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കില് എന്താകും അതിനനുസരിച്ച് മെച്ചപ്പെടുത്താന് അവർക്ക് സാധിക്കും